ആ ഹലോ അമൽ ഹോട്ടലല്ലേ അതെ അവിടെ അവിടെ എന്തൊക്കെയുണ്ട് ഫുഡ് കഴിക്കാൻ ആണോ കറികളോ ആ ആ എനിക്ക് ആ എനിക്ക് ഒരൂ ചായയും ബ്രെഡും കിട്ടിയാൽ മതിയായിരുന്നു ആ അല്ല അന്നേരം അവിടെ എങ്ങനെയുണ്ട് എല്ലാ ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണോയെന്ന് അറിയാൻ വേണ്ടി ഒന്ന് വിളിച്ചതായിരുന്നു ആ ആ ആ എന്നാൽ ഞാൻ ഒരു ഞാനേയ് ഒരൂ ഉച്ചയൊക്കെ ആവുമ്പോഴത്തേക്ക് വന്നാൽ എനിക്ക് ചായയും ബ്രെഡും കിട്ടുമോ

ആ ആ അത് കട്ടൻ ചായ ഉണ്ടോ ഒരു അവിടേ ആ ആ ആ എനിക്ക് നല്ലെയൊരു സ്ട്രോംഗ് ചായ വേണം കേട്ടോ ആ ആ വന്നാൽ വന്നിട്ടെടുത്താലും മതി ആ വേണ്ട എടുത്തു വച്ചാൽ ചിലപ്പോൾ ചൂട് പോവത്തില്ലേ ആ ആ ആ അപ്പോൾപ്പിന്നെ അതുകൊണ്ട് ബ്രെഡിന് കറി അവിടേ കറിയെന്താ ഉള്ളത് ബ്രെഡിന് ആ ആ മുട്ടക്കറി ഈ ഇറച്ചിയെന്ത് ഉണ്ട് ഇറച്ചിക്കറി വല്ലതും ഉണ്ടോ ആണോ ആ നാടനാണോ അതോ ബ്രോയിലറാണോ ആ ആ ആ ആ ആ എന്നാൽ ഞാനെന്തെങ്കിലും ആ എനിക്ക് എന്നാൽ ഒരൂ ബീഫും ഒരു ഇതും മതി ഒരു ചിക്കൻ കറിയും കൂടെ എടുത്താൽ മതി ആ ആ മതി മതി ആ ആ അതു മതി അന്നേരം ചൂടോടെ അവിടെ നിന്ന് എടുക്കുന്നതല്ലെ നല്ലത് കറി എങ്ങനെയാണ് നിങ്ങൾ രാവിലെ വയ്ക്കുന്നതായിരിക്കും അല്ലേ രാവിലെ ആ ആ ആ ആ എനിക്ക് നല്ല സ്ട്രോംഗായിട്ട് വേണം കേട്ടോ ചായ നല്ല സ്ട്രോംഗായിരിക്കണം അല്ലെങ്കിലേ ആ ആ മധുരം ഒത്തിരി ആ പണിയാണ് ഇപ്പോൾ നമക്ക് ഈ മേസ്തിരിപ്പണിയാണെ ആ അപ്പോഴേ ഒരു വലിയ ആ ഇപ്പോൾ ആ ഇതിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂവായിരിക്കും ഇനി ഞാൻ ചോദിക്കട്ടെ പണി സ്ഥലത്ത് ആർക്കെങ്കിലും വേണമെങ്കിലെ അവരേയും കൂടെ വിളിച്ചുകൊണ്ട് വരാം ആ പണിസ്ഥലത്ത് ആളെ അത് ചോദിക്കട്ടെ ഭക്ഷണം കൊണ്ടുവരാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലേ അവരുമായിട്ട് ഒന്നിച്ച് വരാമല്ലോ ഞാൻ ചോദിക്കാം ഏതായാലും അവിടെ വന്നാൽ രണ്ടോ മൂന്നോ പേർ വന്നാലും ഫുഡ് ഉണ്ടല്ലോ അല്ലെ കഴിക്കാനുള്ളത് ആ എന്നാ രണ്ട് മൂന്ന് ഇല്ല രണ്ടു മൂന്ന് പേരേയും കൂടെ വിളിച്ചുകൊണ്ട് വരാം ആ രണ്ട് മൂന്ന് പേരേയും കൂടെ വിളിച്ചുകൊണ്ട് വരാം ആ എന്നാൽ ശരി എല്ലാം സ്ട്രോംഗ് എടുത്ത് വച്ചേക്കണേ ആ ഓക്കെ ഓക്കെ എന്നാൽ ശരി ഓക്കെ